ആ ഹലോ ഇതാരായിരുന്നു

ഓ ജോണിൻ്റെ ഫാദറാണോ ഓക്കെ ഓക്കെ ഓക്കെ എന്തായിരുന്നു അതെ ഞാനും ശ്രദ്ധിച്ചു അവൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ക്ലാസ്സിലെ ഇപ്പം അവൻ ഭയങ്കര സൈലെൻ്റായി ഞാനവനെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കാറൊക്കെയുണ്ട് എന്തു പറ്റിയെന്ന് അപ്പം അവൻ പറഞ്ഞു ഇങ്ങനെ അവന് ഒരു ഒന്നിനോടുമൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല ഒരു ആക്റ്റീവ്നെസ്സ് തോന്നുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു ആ ഓക്കെ ഓഹ് വീട്ടിലും അങ്ങനെയാണല്ലേ

കൂടൂതലിഷ്ടം പോലെ കോകരിക്കുലർ ആക്റ്റിവിറ്റീസൊക്കെ ഉണ്ട് അവന് ഏതെങ്കിലും ഇഷ്ടം ഉള്ള ഒരു സെഗ്മെൻ്റ് ചൂസ് ചെയ്ത് അവനെ അതിനകത്തോട്ടൊക്കെയൊന്ന് ആഡ് ചെയ്താൽ അവന് ഒരിച്ചിരികൂടി ആക്റ്റീവ്നെസ്സ് തോന്നും അതെ അവൻ ക്രിക്കറ്റും ബാക്കി സ്പോർട്സൊക്കെ നന്നായിട്ട് ചെയ്യുന്നതവിടെ കണ്ടിട്ടുണ്ട് അപ്പം അവനെ അതിനകത്തോട്ട് വല്ലതും ഇൻക്ലൂഡ് ചെയ്താൽ അവൻ നല്ലതായിട്ട് പെർഫോം ചെയ്യുമെന്നാണ് ഞാനും ആലോചിച്ചതിങ്ങനെ അല്ലാതെ പെയ്ൻ്റിംഗ് കളറിംഗ് അല്ലെങ്കിൽ മാർഷ്യൽ ആട്സ് കുൻഫു കരാട്ടേ തയ്ക്വോണ്ടോ ഏതെങ്കിലു ഒക്കെ അവന് പറ്റിയതിഷ്ടം പോലെയുണ്ട് അവൻ്റെ അത്ലറ്റിക്കായിട്ടുള്ളൊരു പേഴ്സണായതുകൊണ്ട് അവനെ ഇതിനകത്ത് എൻറോൾ ചെയ്താൽ ചിലപ്പം അവൻ്റെ ഒരു മൂഡിനെസ്സും ഒക്കെ ഒന്ന് പോവുമെന്നൊക്കെയിരിക്കും അവൻ നല്ല ആക്റ്റീവാവും ഇച്ചിരിയും കൂടി ഉഷാറാവും

ഓക്കെ ഓക്കെ ആ വീട്ടിലും എല്ലാവരോടും അവനിങ്ങനെയാണോ അനിയനോടും അനിയത്തിയോടും അമ്മയോടും എല്ലാവരോടും

അവനോട് നിങ്ങൾ ഇരുത്തിയൊന്ന് ചോദിക്കണം എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ സ്കൂളിലെന്തെങ്കിലും ഇതിപ്പം ഞാൻ ക്ലാസ്സ് ടീച്ചറാണെങ്കിലും അവൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളൊന്നും എനിക്കറിയാൻ പറ്റില്ലായിരിക്കും ക്ലാസിലുള്ള എന്തെങ്കിലും അടിയോ വഴക്കൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂള്ളൂ അല്ലാതെ അവൻ്റെ ഉള്ളിലെന്തെങ്കിലും ഉണ്ടോയെന്നോ അതൊക്കെ ചോദിച്ചറിയേണ്ടത് എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല കാരണം ക്ലാസ്സിൽ അമ്പത് പിള്ളാരുണ്ട് ആ പിള്ളാരുടെ മുഴുവൻ കാര്യവും ഇതുപോലെ ചോദിച്ചറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇനി ഇവനെ എനിക്കതൊരു പേഴ്സ്ണ ഇൻട്രസ്റ്റുള്ളൊരാളായതുകൊണ്ട് ഞാൻ അവനോട് ഇരുത്തി ചോദിക്കാറൊക്കെയുണ്ട് അപ്പോഴും അവൻ ഇങ്ങനെയെന്തെങ്കിലും പറഞ്ഞൊഴിഞ്ഞ് മാറാറാണ് പതിവ് അപ്പം നിങ്ങൾ അപ്പനും അമ്മയുമൊക്കെയാണെങ്കിൽ ചോദിച്ച് കഴിയുമ്പോഴവൻ അവൻ ചിലപ്പം പറഞ്ഞെന്നൊക്കെ ഇരിക്കും ഓക്കെ ഓക്കെ നിങ്ങൾ മാക്സിമം അവൻ്റെകൂടെ ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്ത് അവനോടൊക്കെയൊന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ ഉറപ്പായിട്ടും അപ്പം അങ്ങനെയൊക്കെയൊന്ന് ചെയ്താൽ മതി എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാനും ചെയ്യാം ഓക്കെ അപ്പോൾ ശരി താങ്ക് യു